ഇത് മീൻകട അല്ലെ ഇച്ചിരി മീൻ വേണം എന്നാ മീൻ ഉണ്ട് ഇന്ന് അവിടെ ഒര് കിലോ കരിമീൻ വേണമായിരുന്നല്ലൊ ഒര് കിലോ കരിമീൻ

ഒര് കിലോ കരിമീൻ അത്യാവശ്യം ഉണ്ടായിരുന്നേ ഞങ്ങൾക്ക് വേണമായിരുന്നു ഇന്ന് ഉം എന്തായാലും മ് അത് വെട്ടി കൊടുക്കുവോ ആ അ നമുക്ക് അത്യാവശ്യമായിരുന്നു വെട്ടി കിട്ടുവായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് ആ അല്ലെ ഏതായാലും ഞാനങ്ങോട്ട് വരാം ഞങ്ങൾക്ക് തരണം കരിമീനെ കരിമീനിന് എന്താ വില ഇന്ന് എണ്ണൂറ് ഉം അത് വെട്ടിയും കൂടെ തരുമ്പം ഉം എന്നെങ്കിൽ ഒന്ന് വെട്ടി വെച്ചേക്കണം ഞാന് അങ്ങോട്ട് ഒന്ന് വരാമേ ആരെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വന്നതുകൊണ്ടാണ് അത്യാവശ്യമായത് കൊണ്ടാണ് ആ ആ ആ ചോദിക്ക് ആ ഉണ്ടെങ്കിൽ വെട്ടി ഒന്ന് വെച്ചേരെ ഞാനങ്ങോട്ട് വരാമേ വേറെ മീൻ എന്നാ ഉണ്ട് അവിടെ ആ തള തള എന്നാ വിലയാണ് ഇന്ന് നാനൂറ്റമ്പത് ആ ഒര് കിലോ തളയും കൂടെ ഉം അത് കഷ്ണം മീനായിരിക്കുവല്ലൊ ആ ആ വരും വരും അ ഇപ്പം തന്നെ വന്നേക്കാമേ